കേരളത്തിലിപ്പോൾ വിനോദ സഞ്ചാരികൾക്ക് പാട്ടു പാടാനും സംഗീതം ആസ്വദിക്കാനും കഴിയുന്ന ഏതെങ്കിലും പ്രശസ്തമായ കരോക്കെ ബാറുകളോ ഗാനവേദികളോ ഉണ്ടോയെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് പാട്ടിൻറെ വേദികൾ നമുക്ക് ഒരുപാടുണ്ട് ഇപ്പം വിനോദ സഞ്ചാരികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചിലരൊക്കെ സോങ്ങ് കാര്യങ്ങൾ അതായത് ഗാനം ഗാനങ്ങളും ഗാനമേളകളൊക്കെ ഇഷ്ടപെടുന്ന ഒരുപാട് വിനോദ സഞ്ചാരികളുണ്ടാകും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ താത്പര്യമുണ്ടാകും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ വേദികളൊക്ക നമുക്കൊരുപാടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എം എഫ് എം ബേസിക് ബാൻഡ് കൊച്ചിയിൽ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമഫോൺ മ്യൂസിക് ബാൻഡും മ്യൂസിക്കൽ ഈവൻറ്കളും ഒരുപാട് നടക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അതായത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ഗൂഗിളിൽ കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാവുന്നതേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ സ്ട്രൈക് അങ്ങനെ ഒരുപാട് മ്യൂസിക് ബാൻഡ്കളുണ്ട് അപ്പോൾ വിനോദ സഞ്ചരികൾക്കൊക്കെ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻറെ എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ കാണാൻ സാധിക്കും